ആ ഹലോ ആ ഇത് കീർത്തനയല്ലേ ഗൈഡ് ആ നമുക്കാണെങ്കിൽ പദ്മനാഭസ്വാമി ക്ഷേത്രമൊന്നു വിസിറ്റ് ചെയ്യേണ്ടതുണ്ട് നെക്സ്റ്റ് മണ്ടേയാണ് വരുന്നത് ആ ഞാൻ വരുന്നത് ഇവിടെ വയനാട് നിന്നാണ് വരുന്നത്

ആ ആ ഒരു ത്രീ ഡേയ്സെ ഉണ്ടാവുളളൂ ആ ക്ഷേത്രം കാണാനാണ് ആ ക്ഷേത്രങ്ങൾ കാണാനാണ് മെയിനായിട്ട് വരുന്നത് പദ്മനാഭസ്വാമി ക്ഷേത്രം

ആ രണ്ടു കുട്ടികളുണ്ട് ഓ ഓക്കെ ആ ആ ഇവിടെ നിന്ന് ട്രെയിനിൽ വരും പിന്നെ അവിടെ നിന്ന് വണ്ടി ആവശ്യമുണ്ട് ആ ആ

ആ ആ ആണല്ലേ ഓ ഓ അവിടെ എന്തെങ്കിലും പിന്നെ വസ്ത്രവിധാനത്തിൽ എന്തെങ്കിലും ഇതുണ്ടോ കയറാനായിട്ട് ആ ആ ആ ആ ആ ആ

ആ ഓക്കെ ഓക്കെ ആ ആ

ആ ആ ആ ആ ആ ആ ആ ഓക്കെ ആ ആ ശയിക്കുന്നത് ആ ആ ഓ ഓ മ് ആ അനന്തശയനം ആ ഓക്കെ ആ ആ ആ ആ ആ

വിശ്വാസം ഓക്കെ ആ ആ ആ പോകാം ആ താൽപ്പര്യമുണ്ട് ഓക്കെ ഓക്കെ ആ നമ്മൾ അഞ്ചുപേരുണ്ടാവും ആ ആ ആ കുട്ടികൾ രണ്ടുപേരുണ്ട് ആ ആ ആ ആ ആ ആ ആ

ആ ഓക്കെ ആ

ഓക്കെ ഓക്കെ ആ സ്ഥലങ്ങൾ ആ

ഓ ആ പൊന്മുടി

ആ ആ മൂന്നു ദിവസമാണ് പറഞ്ഞിരിക്കുന്നത് ആ

ആ ഹോംസ്റ്റേ മതി ഹോംസ്റ്റേ ആ ഓക്കെ ആ

ഓക്കെ ശരി ആ ആ ശരി താങ്ക് യു